മറ്റ് അയോദ്ധന കലയുടെയോ വ്യവസ്ഥകളുടെയൊക്കെ പരിശീലകരുമായി പരിശീലനം ചെയ്യാൻ നിങ്ങൾക്ക് എന്തെങ്കിലും അവസരം ലഭിച്ചിട്ടുണ്ടോ എന്ന് ചോദ്യത്തിന് എനിക്ക് മറ്റേ മാപ്പിളപ്പാട്ടിന് ഉള്ള പരിശീലനം ലഭിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് വിവിധ മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കാറുണ്ട് അതിനുള്ള സമ്മാനങ്ങളൊക്കെ ലഭിക്കാറുണ്ട് പഞ്ചായത്ത് തലത്തിലും ബ്ലോക്ക് തലത്തിലൊക്കെ മത്സരിക്കാറുണ്ട് പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ഇപ്പത്തെ സാഹചര്യമനുസരിച്ച് നമുക്ക് വലിയ പിന്നെ നല്ല രീതിയിലുള്ള പരിശീലനം ചെറിയ ചെറിയ രീതിയിലുള്ള പരിശീലനങ്ങള് ലഭിച്ചിട്ടുള്ളത് മറ്റേ രീതിയിലൊന്നും അതുമായിട്ട് മുന്നോട്ട് പോവാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല പിന്നെ മാപ്പിളപ്പാട്ട് പാടാറുണ്ട് പിന്നെ ഡാൻസ് അത്യാവശ്യം ചെറുതിലേ തൊട്ട് ഡാൻസ് കളിക്കാറുണ്ട് അതിന് പരിശീലം ലഭിച്ചിട്ടുണ്ട് അതും പൂർത്തിയാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല എങ്കിലും അതിനും പറ്റിയ രീതിയിലൊക്കെ മത്സരിക്കാറുണ്ട് തിരുവാതിര ഒപ്പന അങ്ങനെ എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാറുണ്ട് ഇപ്പം പിന്നെ പുതിയ തരത്തിലുള്ള പരിപാടികളിലൊക്കെ പങ്കെടുക്കും